ആർഷഭാരത കാ സംസ്കാര കാലം മുതൽ തന്നെ സ്ത്രീകൾ സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായിരുന്നു പക്ഷേ കാലം കുറേ മാറിയപ്പോഴും സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഗണ്യമായ സ്ഥാനം കിട്ടുന്നുണ്ടോ എന്നുള്ളത് വളരെ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ് പണ്ട് മനുസ്മൃതിയിൽ പറഞ്ഞിരുന്നു ന സ്ത്രീ സ്വാതന്ത്ര്യ മർഹതി സ്ത്രീക്ക് സ്വാതന്ത്ര്യം സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നാണ് അതിൽ വിപക്ഷിച്ചിരിക്കുന്നത് പക്ഷേ സ്ത്രീകൾ എല്ലാ രംഗങ്ങളിലും മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും നമ്മൾ ജോലി സാധ്യത ജോലി സ്ഥലത്തായാലും സമൂഹത്തിലായാലും എവിടെ ആയാലും സ്ത്രീകൾക്ക് തുല്യ പങ്കാളിത്തവും സുരക്ഷിതത്വവും ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ചർച്ചാ വിഷയമാണ് നമ്മൾ വളരെ ഏറെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണ് ഇന്ന് ടെക്നോള ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കടന്ന് വന്നിരിക്കുന്നു ടെക്നോളജി ഒരുപാട് വികസിച്ചിരിക്കുന്നു നമ്മുടെ അറിവുകൾ അനന്തമായി വികസിക്കുകയാണ് ഈ കാലഘട്ടത്തിലും ഒരു പെൺകുട്ടിക്ക് നമ്മുടെ സമൂഹത്തിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോകാനോ അവൾക്ക് ഒരു ജോലി സ്ഥലത്ത് മറ്റുള്ളവരോടൊപ്പം ഇടപഴകി സ്വാതന്ത്യത്തോട് കൂടി ജോലി ചെയ്യാനോ ഉള്ള അവസരം പലയിടത്തും നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം പണ്ട് കാലങ്ങളിൽ സ്ത്രീകളെ ദൈവത്തെ പോലെ ആരാധിച്ചിരുന്നൊരു കാലവും നമുക്കുണ്ടായിരുന്നു പണ്ട് പെൺമക്കൾ പുണ്യം എന്ന് കരുതുന്ന ഒരു ആർഷഭാരത സംസ്കാരം നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ചെറിയ പിഞ്ച് കുട്ടികൾ പോലും തെരുവുകളിൽ പീഡിപ്പിക്കപ്പെടുകയാണ് അവരും ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടാണ് ഒരു യുവതലമുറ വളർന്നു വരുന്നത് അവർക്ക് നൽകാൻ എന്ത് സന്ദേശമാണ് നമുക്കുള്ളത് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് നടന്നു പോകുന്നതു കണ്ടാൽ അവളെ ആക്രമിക്കണമെന്നുള്ള ചിന്ത യുവതലമുറയിലും എന്തിന് വയസ്സായവരിൽ പോലും ഉണ്ടാകുന്നൊരു പ്രവണതയാണ് ഇന്ന് കാണുന്നത് തൊഴിൽ സമൂഹ തൊഴിൽ സ്ഥലത്തും സമൂഹത്തിലും സ്ത്രീ സംവ്രണം സംവരണം ത് കൊണ്ടുവരണ്ടത് അത്യന്താപേക്ഷിതമാണ് അത് എത്രയൊക്കെ പറഞ്ഞാലും അതിന് മാറ്റങ്ങൾ വന്നു കാണുന്നില്ല ഒരുപാട് സ്ത്രീ സംവരണ ബില്ലുകൾ പാസ് ആക്കുന്നുണ്ടെങ്കിലും ഒന്നും പ്രാവർത്തികമായി കാണുന്നില്ല അഥവാ വന്നാൽ പോലും അവ എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളത് ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് ഇന്ത്യയിൽ സ്ത്രീകൾ സുരക്ഷിതരാണ് എന്ന് പറയാൻ കഴിയില്ല ഏതു മേഖലയിലായാലും ഒറ്റയ്ക്കോ കൂട്ടായോ സ്ത്രീകളെ കടന്നാക്രമിക്കുന്നത് ഒരു പ്രവണതയായി കണ്ടുവരുന്നൊരു കാലഘട്ടമാണിത് അത് ബസ്സിനുള്ളിലായാലും ആ ട്രെയിനിനുള്ളി ഉള്ളിലായാലും യാത്രാ വേളകളിലും എവിടെ വെച്ചായാലും ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുന്നു എന്നുള്ള വാർത്ത ഇല്ലാതെ ഒരു ദിവസവും ഒരു മാധ്യമവും പുറത്തിറങ്ങാറില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ സമൂഹത്തിനും കാഴ്ചപ്പാടിലും മാറ്റങ്ങൾ സംഭവിക്കേണ്ടത് അത്യാവശ്യമാണ് മറ്റൊന്ന് എല്ലാ മേഖലയിലും ശ്രു സ്ത്രീ സംവരണം ഉറപ്പാക്കുന്നുണ്ടങ്കിലും ഇന്നും സ്ത്രീകൾ കടന്ന് ചെല്ലാൻ മടിക്കുന്ന അല്ലെങ്കിൽ വേണ്ടത്ര പ്രധാന്യം ലഭിക്കാത്ര ലഭിക്കാത്ത എത്രയോ മേഖലകൾ ഇന്നും നമുക്കിടയിലുണ്ട് സ്ത്രീ സംവരണം വളരെ അത്യന്താപേക്ഷിതമായി തന്നെ നടപ്പാക്കേണ്ടുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ നിത്യേന നേരിടുന്ന വെല്ലുവിളികൾ അനവധിയാണ് സ്ത്രീകൾക്ക് സർവ്വ സ്വാതന്ത്ര്യത്തോടും കൂടി നടന്നു പോകാൻ പറ്റുന്ന തെരുവ് വീഥികൾ നമുക്ക് അപരിചിതമാണ് അവർക്ക് ആവശ്യമായ ടോയിലറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോ മറ്റു സൗകര്യങ്ങൾ സ്ത്രീകൾക്ക് അത്യാവശ്യം വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോ ഒന്നും നമ്മുടെ ഭരണകൂടം തന്നെ തയ്യാറാവുന്നില്ല പല സ്ഥലങ്ങളിലും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീകൾ ഏറെയാണ് ജോലി സ്ഥലത്തായാലും എത്രയോ സ്ത്രീകൾ ആ നിത്യേന ഇത്തരം ദുരിതങ്ങൾ അനുഭവിക്കുന്നു എന്തിന് ഒരു വസ്ത്ര നിർമ്മാണ കടയിൽ പോയാൽ നമുക്കറിയാം വസ്ത്ര നിർമ്മാണ കടയിൽ മാത്രമല്ല ടെക്സ്റ്റൈൽ ഷോപ്പുകളിലൊക്കെ പോയിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവടെ പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ എത്രയോ സ്ത്രീകൾ നിന്ന് ജോലി ചെയ്യുന്നു അവർക്ക് ഇരിക്കാനുള്ള അവസരം പോലും ഇല്ല താരതമ്യേന ശാരീരികമായി ദുർബലയായ സ്ത്രീകൾക്ക് ഇത്തരം ജോലി ജോലികൾ പരീക്ഷണങ്ങളായി മാറുകയാണ് തീർച്ചയായും ഇതിനൊക്കെ ഒരു മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ് സ്ത്രീ ഉയർന്നു വന്നാൽ മാത്രമേ അത് സമൂഹത്തിലായാലും വീട്ടിലായാലും ഏത് രംഗത്തായാലും അവളുടെ പങ്കാളിത്തം ഉറപ്പ് വരുത്തിയാൽ മാത്രമേ ആ രംഗത്ത് പൂർണ്ണ പൂർണ്ണത വരികയുള്ളൂ ആയതിനാൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ അവസാനിപ്പിക്കാൻ ഭരണകൂടവും സമൂഹവും ഒന്നിച്ച് കൈ കോർക്കേണ്ടതാണ് ഇനി വളർന്നു വരുന്ന തലമുറയിലെ പെൺകുട്ടികൾ സുരക്ഷിതരായി യാതൊരു പേടിയുമില്ലാതെ വളരെ ഭംഗിയായി അവരുടെ ജോലികൾ നിർവഹിക്കാൻ അവർ പ്രാപ്തരാവട്ടെ അവരെ അതിനു പ്രാപ്തരാക്കുന്ന ഒരു സാമൂഹിക ചുറ്റുപാടുകൾ ഒരുക്കി കൊടുക്കാൻ നാം സന്നദ്ധരാണ് റോഡിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടിയെ കണ്ടാൽ അവളെൻ്റെ സഹോദരിയാണ് എന്ന് കരുതാൻ എല്ലാ ആൺകുട്ടികൾക്കും കഴിയണം അതിനായി അവരെ മാനസികമായി സജ്ജരാക്കേണ്ടുന്ന അവർക്ക് വേണ്ടുന്ന മാനസിക ആരോഗ്യം നൽകേണ്ടുന്നത് വീട്ടിൽ നിന്നും മാതാപിതാക്കൾ തന്നെയാണ് നമുക്ക് ഒത്തൊരുമിക്കാം ഒരു നല്ലയൊരു നാളേക്കായി നല്ലയൊരു സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പ് വരുത്തുന്ന സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പ് വരുത്തുന്ന ഒരു നല്ല നാളേക്കായി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം